ഓരോ പ്രദേശത്തിനും ആ പ്രദേശത്തിൻ്റെതായിട്ടുള്ള ചില വിനോദ പരിപാടികളുണ്ട് എൻ്റെ നാട്ടിലെ വിനോദ പരിപാടികൾ പ്രധാനമായിട്ടും വിവിധ കലാരൂപങ്ങളാണ് ചവിട്ടുനാടകം പോലുള്ള കലാരൂപങ്ങള് അതിൻ്റെ പരിശീലനം അങ്ങനെ കലയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിനോദ പരിപാടികളുണ്ട് അതുകൂടാതെ വള്ളംകളി ഈ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് വള്ളംകളിയോട് അനുബന്ധിച്ചുള്ള പരിശീലന പരിപാടികൾ അതുകൂടാതെ ഓരോ ക്ലബ്ബുകൾ അവരുടെതായ രീതിയില് പല കായിക വിനോദങ്ങളുടെയും പരിശീലനങ്ങളും ടൂർണമെറ്റുകളൊക്കെ നടത്തുമ്പോഴ് അത് ഒരു വിനോദ പരിപാടിയായിട്ട് മാറുകയാണ് അങ്ങനെ കുട്ടികൾക്കിടയിലുള്ള ചില വിനോദങ്ങൾ കളികൾ ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് അങ്ങനെ പല കളികളും വിനോദങ്ങളിൽ പെടുന്നുണ്ട് കലാകായിക രംഗങ്ങളില് വിവിധ കലാരൂപങ്ങൾ പ്രദേശത്തിൻ്റേതായിട്ടുള്ള കലാരൂപങ്ങളിൽ ഒന്നാണ് ചവിട്ടുനാടകം അതുപോലന്നെ കായിക വിനോദമായ വള്ളംകളി ഇവയൊക്കെ ഹൃദയത്തോട് ചേർത്തുവെയ്ക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം